ഹലോ ആരാണ് ഇത് ആ ഹൂ എവിടേക്കാണ് പോ എങ്ങോട്ടാണ് പോൻ പാലക്കാട് പോ ആ ഇരുപതിനായിരം റുപ്യ അവിടെ പോയാൽ എല്ലാ സംഗതികളും കാണാം ആ എല്ലാം കാണാൻ പറ്റും വയനാട് പോകാം പാലക്കാട് പോവാം കോട്ട കുന്നുമ്മേൽ പോവാം എവിടേക്കാണ് പോവേണ്ടത്

ഇരുപതിനായിരം റുപ്യ ആവും പാലക്കാട് നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് എത്ര ആൾക്കാരുണ്ട് ഉണ്ടോ എല്ലാവർക്കും കൂടി ഒപ്പം പോവാം പോവണം ഇരുപതാം തീയതിക്ക് ഒക്കെ

അതൊക്കെ കിട്ടും അതൊക്കെ ഉണ്ടാവും അതൊക്കെ സൗകര്യം ഉണ്ടാവും ഡൽഹി ആ ആ